ഹലോ ഹലോ കേള്ക്കുന്നുണ്ടോ

ഹലോ ഇതാണ് ആശാ വര്ക്കര് നിങ്ങള് നിങ്ങള്ക്ക് കൊറോണ വന്നിട്ടിണ്ടായിരുന്നില്ലേ ആണല്ലേ ആ അപ്പോള് വാക്സിനൊക്കെ നിങ്ങള്ക്കു കൃത്യമായിട്ട് എടുത്തിട്ടില്ലേ ആ നിങ്ങളെ പേരെന്തായിരുന്നു രണ്ടെണ്ണം അല്ലേ ആ ഹാ അപ്പോള് ഞാന് വിളിച്ചതെന്താണെന്നുവച്ചിട്ടുണ്ടെങ്കില് ആശാവര്ക്കറിൻറ്റൊരു ഇപ്പോള് ഉള്ളത് അതായത് കൊറോണ വന്നവരെ അവസ്ഥ എന്താണ് എന്നറിയണം അതുകൊണ്ടാണ് നിങ്ങളെ ഞാനിപ്പോള് കോളേയ്തത് പറയാനുള്ളതെന്താണെന്നു വച്ചയിഞ്ഞാല് നിങ്ങള് ഫുഡിങ്ങോക്കെ എങ്ങനെയാണ് ഫുഡൊക്കെ അതെ ചൂടുവെള്ളം രാവിലെ എപ്പോഴും കുടിക്കുന്നില്ലേ നമ്മളെ ഒരു സഭയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ആള്ക്കാരോരോ സ്ഥലത്തേക്കൊക്കെ പോവുന്നുണ്ടോ അതാണ് ഇപ്പോള് ചെയ്യേണ്ട ഒരു കാര്യം വലിയ കാര്യമെന്നുപറഞ്ഞാല് അതു തന്നെയാണ് ഇപ്പോള് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ കൊറോണ വന്നതിനുശേഷം നടുവേദന തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ എഫെക്റ്റാണ് അതിപ്പോള് പോവണമെങ്കില് നിങ്ങളെന്തെയ്യണം നല്ലവണ്ണം ഫുഡ് കഴിക്കണം ശരീരത്തിനാവശ്യള്ള വിറ്റമിന്സ് അതെല്ലാം നല്ലവണ്ണം ഡൈജെസ്റ്റായാലേ പറ്റുകയുള്ളൂ പരമാവധി പരമാവധി തണുത്ത വസ്തുക്കള് കളയുക ഉപേക്ഷിക്കുക ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കാണ്ടിരിക്കുക ആ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില് അപ്പോഴെന്നെ സ്വയം ചികിത്സിക്കാതെ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്കു പോവുക ആ പിന്നെന്താണ് ഇപ്പോള് പറയാനുള്ളതെന്നുവച്ചിട്ടുണ്ടെങ്കില് നിങ്ങള്ക്കിപ്പോള് വേറൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ ഉണ്ടാവും ഉണ്ടാവും കൊറോണ വന്നഴിഞ്ഞാല് അതുണ്ടാവുമെന്നാണ് പറയുന്നത് അത് ഡോക്ടേർസും സൈന്റിസ്റ്റൊക്കെ അങ്ങനെയാണു പറയുന്നത് ആ അപ്പോള് എന്നാല് ശരി